ഗുഡ് ആഫ്റ്റർനൂൺ ഇതാരാണ് സംസാരിക്കുന്നത് ആ ആയിക്കോട്ടെ

തിരക്കിലാണ് പക്ഷേ ഇപ്പോൾ എല് ഐ സിയൊക്കെ കൂടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റിലാണ് ഇപ്പോൾ വര്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ആ ചിട്ടിയിലുണ്ട് രണ്ട് മൂന്ന് ചിട്ടിയിലുണ്ട് അപ്പം അതും എല് ഐ സിക്ക് കൂടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് സാഹചര്യം പറ്റാണ്ടായി പോയി രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അടയ്ക്കും പിന്നെ രണ്ട് ചിട്ടിയുണ്ട് വേറെയൊരു അതെ

അതെ മാരീഡ് ആണ് ആ മ് മ്

മ് മ് ഞാന് ചോദിച്ച് നോക്കട്ടെ ഹസ്ബന്ഡിനോട് ഹസ്ബന്ഡ് എന്താണ് പറയുക എന്ന് അറിയില്ലല്ലോ ഹസ്ബന്ഡിന് ടൈലറിംഗ് ഷോപ്പ് ആണ് ആ പക്ഷെ അദ്ദേഹം വേറെയൊരു കു ആ വേറെയൊരു എല് ഐ സിയിൽ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്

നല്ല കാര്യമാണ് ആ നല്ല കാര്യമാണ് പക്ഷേ ഹസ്ബന്ഡിനും കൂടി ഒന്ന് ചോദിച്ചുനോക്കട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക്യൂ